നടുവേദന നടുവ് ഉളുക്കുക ഇതിനൊക്കെ നമ്മൾ നാട്ടിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് വാഴക്കണ പിടിക്കുക എന്നുള്ളതാണ് വാഴക്കണ കൊണ്ടുവരും വാഴേൻ്റെ തണ്ട് വാഴേൻ്റെ ഇല ഉള്ളതിൽ തണ്ട് എടുക്കും തണ്ട് എടുത്തിട്ട് ചില പച്ച മരുന്നൊക്കെ യൂസ് ചെയ്തിട്ട് ഈ തണ്ട് രണ്ട് പേർ ഒന്ന് ഉളുക്കുള്ള ആളും അല്ലങ്കിൽ നടുവ് വേദന ഉള്ള ആളും ഒന്ന് നടുവ് വേദന ഇല്ലാത്ത ആളും തമ്മിൽ പിടിച്ചിട്ട് അത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ വാഴക്കണ പിടിക്കുക എന്നുള്ളത് അത് പെട്ടന്ന് ഭേദമാകും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ നല്ല രണ്ട് മൂന്ന് ദിവസം കറക്റ്റ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ പെട്ടന്ന് ഒരു റീലാക്സേഷനും ഭേദമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഈ നാട്ടിൽ ചെയ്ത് വരുന്നതാണ് നടുവ് വേദന ഉള്ളവർ കട്ടിലിൽ പ്ലെയിനായിട്ടുള്ള കട്ടിലിൽ കിടക്കയോ അല്ലെങ്കിൽ വേറെയൊന്നും യൂസ് ചെയ്യാണ്ട് പ്ലെയിനായിട്ടുള്ള കട്ടിലിൽ കിടക്കുക്ക എന്നുള്ളത് അതും വളരെ പ്രധാനമായിട്ട് ചെയ്ത് വരുന്ന ഒന്നാണ് അതുപോലെ ഈ കുറുന്തോട്ടി അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ഈ തുളസി കാര്യങ്ങൾ കുരുമുളക് എണ്ണ ഇടിച്ച് പിഴിഞ്ഞിട്ടുള്ള ഒരു നാട്ടു പച്ച മരുന്ന് പറയുന്നപോലെ വൈദ്യന്മാർ തരുന്ന ഒരു എണ്ണയുണ്ട് ഇതൊക്കെ തേച്ച് പറഞ്ഞാൽ പരമാവധി നടുവ് വേദനയൊക്കെ ഒഴിവാകും നടുവ് വേദന പൂർണ്ണമായും ഒഴിവാക്കാവുന്ന ഒന്നാണ്